എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ അച്ചായൻ എന്നും അയർകുന്നത്തിന് പോകുമ്പോഴത്തേന് എന്നെയും കൂടെ കൂട്ടികൊണ്ട് പോവുമായിരുന്നു ഞങ്ങളവിടെ ചെറിയൊരു ലൈബ്രറി ഉണ്ട് അവിടെ പോയി പുസ്തകമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അച്ചായനെനിക്ക് ആദ്യാദ്യമൊക്കെ ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ തരുവായിരുന്നു പിന്നെ പിന്നെ എന്നെ ഇച്ചിരി കൂടെ വലുതായി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ചെറിയ ചെറിയ നോവലുകളൊക്കെ ഇങ്ങനെ എടുക്കാനായിട്ട് തുടങ്ങി കാനത്തിൻ്റെത് വായിച്ചിട്ടുണ്ട് നമ്മുടെ മുട്ടത്ത് വർക്കിയുടെ വായിച്ചിട്ടുണ്ട് പൊൻകുന്നം വർക്കി വായിച്ചിട്ടുണ്ട് പിന്നെ ഭയങ്കര നോവൽ കാരനായിരുന്നു ബാറ്റം ബോസിൻ്റെ അയ്യോ ഡ്രാക്കുളയൊക്കെ വായിച്ച് ചത്തിട്ടുണ്ട് അത് പിന്നെ ജോയ്സിയുടെ കഥകൾ വായിച്ചിട്ടുണ്ട് പിന്നെ മംഗളം ഇച്ചിരികൂടെ വലതുതായപ്പോഴത്തേനും മംഗളം മാസിക മലയാള മനോരമ വനിത വായിക്കും അങ്ങനെ തന്നെ ഓരോരോ കാര്യങ്ങൾ ഒക്കെ വായിക്കും ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുനിന്ന് പഠിക്കാനായിട്ട് ഉണ്ട് നമുക്ക് ആരോഗ്യ പംക്തിയുണ്ട് ഡോക്റ്ററോട് ചോദിക്കാനായിട്ടുണ്ട് നോവലുകൾ കഥ നോ നോവലുകളെ വെച്ച് നോക്കുമ്പോഴത്തേനും ചെറിയ ചെറിയ മാസികകൾക്ക് അകത്ത് ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് അറിയാത്ത കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിക്കും പിന്നെ പിന്നെ കുറച്ചുകൂടി ഒക്കെ വലുതായി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ എൻ്റെ കൂട്ടുകാരികളൊക്കെ എനിക്ക് കൊണ്ട് അമർചിത്രകഥകളൊക്കെ കൊണ്ട് തന്നു നമ്മൾ ഭാരതവും മഹാഭാരതവും അത്യാവശ്യം ഹൈന്ദവരെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ അത് കാണാപാഠം പഠിച്ച് പോകുന്നത്പോലെയാണ് എല്ലാം അവർ ഞാൻ ഒരു നമ്മുടെ ഒരു വിശ്വാസം വെച്ച് നോക്കുമ്പോഴത്തേന് നമ്മളെക്കാൾ കൂടുതൽ അവർ വിശ്വാസത്തിലോട്ടായി പോകും അതുപോലെയാണ് ആ വായിച്ച് കഴിയും ശ്രീകൃഷ്ണനും കംസനും യശോദയും അവരെല്ലാവരും കൂടെ എല്ലാവരെയും വായിച്ച് വായിച്ച് വായിച്ച് ഒരു പ്രത്യേക ഇതിലോട്ട് വരും ക്രിസ്തീയ മതത്തിലെപ്പറ്റിയാണെങ്കിലും നമ്മൾ ബൈബിളും വായിച്ച് എല്ലാകാര്യങ്ങളും നമുക്കും ദൈവീകമായിട്ട് ആ ഒരു രീതി വളർത്തി കൊണ്ട് വരുന്നതുണ്ടായ നല്ല രീതി നമുക്ക് വളരാനും സാധിച്ച്